ഇപ്പോൾ ഞമ്മൾ കൂടുതലായിട്ടും വരയ്ക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർ എന്നു പറഞ്ഞ് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ മുഖം അതൊക്കെയാണ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് അപ്പം അത് നല്ല രീതിയിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലും ഞങ്ങൾ ഞാനിപ്പോൾ ശ്രമിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാളുടെ മുഖം വരക്കുക എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അതായത് നമ്മളത് പ്രസൻ്റേഷൻ ആയിട്ട് കൊടുക്കുകയോ ഇല്ലെങ്കിൽ നമ്മളത് അവർക്ക് അത് പൈസക്ക് നമുക്കെന്തായാലും ഒരു പൈസക്ക് ആവശ്യം വരുമ്പോഴും നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം കാരണം ഈ ചിത്രകലയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഒരു ഉപജീവന മാർഗ്ഗം കൂടിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി സാധിക്കും അപ്പം അത് നമുക്കത് വരച്ചു കഴിയുമ്പോൾ നമുക്കത് നമ്മൾ അവരുടെ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ നമുക്കത് കാണുമ്പം തന്നെ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് കാരണം അവരുടെ ഒരു പി ചിത്രം വരച്ചു നമ്മളത് ഇവർക്കത് കൊടുത്ത് കഴിയുമ്പം അവരുടെ ഒരു സന്തോഷം ഉണ്ടാകും അത് അതിലും വലുതാണ് കാരണം നമുക്ക് അത് പൈസേനേക്കാളും വലിയ ഒരു സന്തോഷവും കാര്യങ്ങൾ ഒക്കെയാണ് ഉണ്ടാവുക അപ്പോൾ അത് ഒരു വിഷയം ആണെന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വരച്ചു കൊടുക്കുമ്പോൾ ഒരു സന്തോഷവും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകില്ലേ അതു തന്നെയാണ് മെയിനായിട്ടുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണുമ്പം തന്നെ നമ്മൾക്ക് ഭയങ്കര രീതിയിലുള്ള ഒരു സന്തോഷവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും